അതായത് നമ്മളിപ്പോൾ ടി വിയിലൊക്കെ കാണുന്നത് യൂട്യൂബ് പറയുന്നത് ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾ ഒരുപാടുണ്ട് ഇപ്പം നമുക്കിപ്പോൾ പറയാം അതായത് ഡി ഫോർ ഡാൻസിന്റെ ഒരുപാട് പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ഡി ഫോർ ഡാൻസ് ഡി ഫോർ ഡാൻസ് അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പേർളി മാണി അതായത് ശ്രീനിസ് ആ ഒരു ടൈമിൽ ഒക്കെ ഉണ്ടായിരുന്നത് ഡീ ഫോർ ഡാൻസ് ഞാൻ എപ്പോഴും ദിവസവും കാണും പിന്നെ പിന്നെ വന്ന ഡാൻസുകളൊന്നും എനിക്ക് വലിയ കൂടുതലായിട്ട് കാണാനൊന്നും വലിയ താത്പര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടുതന്നെ കൂടുതലായിട്ടും പിന്നെ ഇതിലൊക്കെ കാണാറുണ്ട് അതായത് ഇൻസ്റ്റഗ്രാമിൽ അതേപോലെ യൂട്യൂബിലൊക്കെ അതായത് ചെറിയ ചെറിയ വീഡിയോകൾ ഒക്കെ ഉണ്ടാവില്ലേ ഡാൻസ് ചെറിയ കുട്ടികൾ നല്ലവണ്ണം കളിക്കുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ കാണാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി വി ഷോകളെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡാൻസിൻ്റെയും ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത് എന്താ സ്റ്റാർ അങ്ങനെ എന്തോ ഒരു പരിപാടിയുണ്ടായിരുന്നു അത് ഇടക്കിടയ്ക്ക് കാണുമായിരുന്നു അത് അത്യാവശ്യം നല്ല ഇഷ്ടമാണ് അതിൽ ദിൽഷാനെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൃത്തങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ നൃത്തം ചെയ്യാൻ അങ്ങനെ അറിയില്ലെങ്കിലും നൃത്തങ്ങൾ കാണാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്